ഹലോ ഗുഡ് ആഫ്റ്റർ നൂൺ അതെ പറഞ്ഞോളൂ ഓക്കെ ഓക്കെ നിങ്ങൾ ഫ ഫാമിലി ടൂർ ആണോ ആ എവിടെക്കാണ് പോകുന്നത് ഇല്ല പറഞ്ഞില്ല എത്ര ദിവസം അപ്പോൾ ഓണ പരീക്ഷയൊക്കെ ഓണ പരീക്ഷയല്ലേ വരുന്നത് ആ ക്ലാ ആ ക്ലാസ്സ് ടീച്ചർനോട് പറഞ്ഞോളൂ ഓക്കെ ഓക്കെ എന്നാണ് നിങ്ങൾ പോകുന്നത് എന്നു വരും ഓക്കെ ഓക്കെ വന്നാൽ ഉടനെ തന്നെ എക്സാം ഉണ്ട് അതുകൊണ്ട് അതിന് അനുസരിച്ചുള്ള ഒരു ക്രമീകരണം നിങ്ങൾ ചെയ്യണം കേട്ടോ ലെറ്റർ എഴുതി ഇവിടെ ഏൽപ്പിക്കണം കേട്ടോ

ഓക്കെ പിന്നെ കൂടാതെ ക്ലാസ് ടീച്ചർനോട് പറയുക പിന്നെ കുട്ടിയെ കൂട്ടി നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഇവിടെ വന്ന് ലെറ്ററ് കൊടുത്തു വിടണം അല്ലെങ്കിൽ നോട്ട്സ് എല്ലാം മറ്റു കുട്ടികളോട് ചോദിച്ച് അതെല്ലാം കററ്റായിട്ട് എഴുതണം അത് പോവുന്നതിനു മുന്നേ ഇന്ന് തന്നെ തരണം കേട്ടോ ഓക്കെ ആ കൂടാതെ ഫാമിലിയായിട്ട് പോവുമ്പഴത്തേ മറ്റ് കുട്ടികളെ ഇതിലൊന്നും വരുന്നില്ല പിന്നെ അസുഖങ്ങളൊന്നും ഒന്നും പിടിക്കാതെ നോക്കണം ഇപ്പോൾ ഒത്തിരി പകർച്ചവ്യാദികൾ ഉണ്ട് പനി കാര്യങ്ങളൊക്കെയുണ്ട് അതൊന്നും പിടിവിടാതെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാർക്ക് കുറയാനായിട്ട് ഇടയാവരുത് പഠിക്കുന്ന കുട്ടിയാണ് സ്കൂളിനു ഒരു പ്രതീക്ഷയുള്ള കുഞ്ഞാണ് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് കുട്ടീടെ കാര്യത്തിൽ ശ്രദ്ധിച്ചോണം ഓക്കെ ഓക്കെ ആ പോയി എൻജോയ് ചെയ്തു വരുക ആ ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ആ ആ ട്യൂഷനേക്കാൾ ഉപരി സ്കൂളിൽ നല്ലരീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് നല്ല എഫിഷ്യൻറ്റായിട്ടുള്ള അധ്യാപകർ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ട്യൂഷനേക്കാൾ ഉപരി സ്കൂളിൽ തന്നെ വീട്ടിൽ നല്ല രീതിയിൽ പഠിപ്പിക്കുക ഇങ്ങനെയുള്ള എക്സാമിനോടടുത്ത സമയങ്ങളിലുള്ള നിങ്ങളുടെ ഈ ടൂർ പ്രോഗ്രാം ഒക്കെ മാക്സിമം അവോയിട് ചെയ്യുക ഇപ്രാവിഷ്യം മാത്രം സാങ്ഷൻ ചെയ്തിരിക്കുന്നു ആ ഓക്കെ ആ ഓക്കെ ആ അപ്പോൾ ആ ലീവിനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ആ പോയിട്ടുവരുക ആ ആ ആ ഓക്കെ ഓക്കെ ആ ആയിക്കോട്ടെ ആ ഓക്കെ ബായ്